ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ് മാർക്കുകളെന്നു പറയുന്ന ഹവാമഹൽ താജ്മഹൽ ഇന്ത്യ ഗേറ്റ് ഗോൾഡൻ ടെംപിൾ ഇതെല്ലാമാണ് ഹവാമഹൽ ജയ്പ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് കാറ്റുകളുടെ നാട് എന്ന പേരിലെല്ലാം അറിയപ്പെടുന്നുണ്ട് താജ്മഹൽ ആഗ്രയിലാണ് മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഷാജഹാൻ ചക്രവർത്തി പണികഴിപ്പിച്ച ഒരു ഗോപുരാമാണ് താജ്മഹൽ പിന്നെ ഇന്ത്യ ഗേറ്റ് ഡെല്ലിയിലാണ് അതൊരു യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നതാണ് അത് ഗോൾഡൻ ടെംപിൾ ഡെല്ലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്ത്രീപുരുഷ വ്യത്യാസമില്ലാണ്ട് ഏത് മതക്കാരേയും എല്ലാ എല്ലാ വിശ്വാസികളേയും സ്വാഗതം ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അത് സ്വർണ്ണം പൊതിഞ്ഞ് കാണികളെ വിസ്മയിപ്പിക്കുന്നെ ഒരു ക്ഷേത്രം സുവർണ്ണ ക്ഷേത്രമാണ് അത് ലോകത്തിലെ സിക്ക് മതക്കാരെ ഒരു ആത്മീയ കേന്ദ്രമാണ് ഈ ഈ ക്ഷേത്രം